എടാ എന്താണ് പറയുക ഇങ്ങനെ അടുത്തിടെ ആയിട്ട് ഞാൻ ഇങ്ങനെ വിവാഹമോചനത്തിലോട്ട് പോയി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വിവാഹമോചനം ചെയ്തു അപ്പം എനിക്ക് നിന്നോട് സംശയം ചോദിക്കാനുണ്ട് അപ്പം എന്താണ് എടാ ഈ പേര് മാറ്റുന്നത് ഒ പേര് മാറ്റ് പാസ്പോർട്ടിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റേതൊക്കെ ആയ പ്രക്രിയകളൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് ഈ ആപ്ലിക്കേഷന് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഘടകങ്ങളും അതിന്റെ ആവശ്യമായ രേഖകളും യോഗ്യതകളും മാനദണ്ടങ്ങളും എന്തുവാണെന്നും എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ എനിക്ക് അത് എങ്ങനെ ഒക്കെയാണ് ആപ്ലിക്കേഷന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ഘടകങ്ങളാണ് അതിന് വേണ്ടതെന്നൊന്ന് പറഞ്ഞുതരുമോ